ഇപ്പോള് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമവ്യത്യാസത്തിലെനിക്കാദ്യം പറയാനുള്ളത് കൈക്കൂലിക്കെതിരെ കുറച്ചുകൂടെ നല്ല ലംഘനങ്ങൾ കൊണ്ടു വരുന്നതിനെ പറ്റിയാണ് ഇപ്പോള് നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ കൂടാന് കാരണം തന്നെ ഒരു പരിധിക്ക് വരെ കുറ്റവാളിക്ക് കുറ്റം ചെയ്താലും എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെടാമെന്നൊരു തോന്നലാണ് അപ്പോള് അതീ കൈക്കൂലി മാർഗമാണ് നടക്കുന്നത് അപ്പോള് അതിനെതിരെ കുറച്ച് കുറച്ചുകൂടെ നല്ല നിയമ ലംഘനങ്ങൾ വന്നു എങ്കിൽ ആ മേഖലയിലുള്ള കുറ്റകൃത്യങ്ങൾ നമുക്ക് പറ്റാവുന്നത്രേ കുറയ്ക്കാൻ സാധിക്കുമെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാമതൊരു കാര്യമെന്ന് പറയാണെങ്കില് ഈ ശിക്ഷ കിട്ടുന്ന സമയ പരിമിതി കുറച്ചുകൂടെ പെട്ടെന്നാക്കുക ഇപ്പോള് ഒരുപാട് കുറ്റകൃത്യങ്ങൾ മൂലമാവാം ശിക്ഷ കിട്ടാൻ വൈകുന്നതെങ്കിലും കുറച്ചുകൂടെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കുവാണേൽ ആൾക്കാർക്ക് നീതി കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തൊരു നിയമം കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്കും തോന്നിയിട്ടുണ്ട് പിന്നെ

ഓൾറെഡി ഉണ്ടാവാം പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് എൻഫോഴ്സ് ചെയ്ത് ചെയ്യുകയാണേൽ കുറച്ചുകൂടെ നന്നായിട്ട് നന്നായിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ രാജ്യത്ത് വർധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പല കുറ്റകൃത്യങ്ങളും ജോലിയില്ലായ്മയോ ദാരിദ്ര്യം മൂലമോ അല്ലെങ്കിൽ പഠനം ഇല്ലാഴ്കയോ നടക്കാറുണ്ട് അപ്പോള് ഈ മൂന്ന് കാര്യങ്ങളൊക്കെയൊന്ന് പറ്റാവുന്നത്രയും കുറയ്ക്കുകയാണെങ്കില് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യും കുറ്റകൃത്യങ്ങള് കുറയുമെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറയ്ക്കാൻ എനിക്ക് കണ്ട വേറൊരു ചെറിയൊരു കാര്യം എന്താച്ചാല് കുറച്ച് സ്ഥലത്തുകൂടെ ക്യാമറാസ് കൊണ്ടുവരിക അപ്പോള് എല്ലാവടെയും ക്യാമറാസ്സുണ്ടേല് എല്ലാവരുടെയും ദൃശ്യം നമുക്ക് പകർത്താൻ പറ്റുവാണെങ്കില് ആൾക്കാർക്കൊരു ഭയം മൂലമെങ്കിലും കുറ്റ കൃത്യങ്ങൾ ചെയ്യാണ്ടിരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യണ്ടേന്ന് ചോദിക്കുവാണേല് നമ്മളഥവാ വല്ല അനീതിയോ അല്ലേലെന്തേ കുറ്റകൃത്യങ്ങള് കണ്ടാല് നമ്മളതിനെതിരെ പ്രവർത്തിക്കുക നമ്മള് കാണാണ്ട് നില്ക്കുന്നത് തന്നെ ഒരു കുറ്റമായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോള്പ്പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നുമൊന്നും വരത്താണ്ടിരിക്കുക ഇതെക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതേപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ രാജ്യമാസകലം നോക്കുവാണേലൊരു നല്ല വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്